ഹലോ അതേല്ലോ നമ്മള് രാവിലെ ഒമ്പതര മുതല് ഓപ്പണാണ് വൈകുന്നേരം പത്ത് മണി വരെയുണ്ട് ഇത് കൽപ്പറ്റ കളക്ട്രേറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആ നമ്മളിപ്പോള് എല്ലാം എല്ലാം സ്റ്റാർട്ടെയ്തിട്ടുണ്ട് പെറ്റ്സിനുള്ള ഫൂഡ്സ് അതേപോലെ തന്നെ എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നുണ്ട് ആ അതേ ഓൾമോസ്റ്റെല്ലാം നമ്മുടെ കയ്യിലുണ്ട് നിങ്ങള്ക്ക് ഏതാനിമലിനെയാണു കൊണ്ടുവരാനുള്ളത് ഓക്കെ ഒരു വയസ് ആ ഓക്കേ ആ ഓക്കെന്നാ എന്നാണു വരുന്നത് നാളെയാണോ ഓക്കെ ഈ മാം വരുന്നതിനു മുന്നേ ഒന്നു ജസ്റ്റൊന്ന് വിളിച്ച് ബുക്കെയ്യോ കാരണം മാം നമുക്കീയാഴ്ച കുറച്ചു തിരക്കുണ്ട് കുറച്ച് ബുക്കിങ്ങിസുണ്ട് അത് നമുക്ക് മാക്സിമം ഒരു രണ്ട് മണിക്കൂറാണ് പിന്നെ നോക്കിയിട്ട് ടൈം അഡ്ജസ്റ്റെയ്ത് ചെയ്യാം എങ്ങനെ ഇല്ല നമ്മളിപ്പോള് സെയിലില്ല ഇപ്പോള് കൂടുതലും ഈ ഗ്രൂമിങ് അതേപോലെ വാക്സിനേഷന് അങ്ങനത്തെ കാര്യങ്ങളാണു ചെയ്യുന്നുള്ളു സെയിലില്ല ആ അതെ അതെ നമ്മള് തൗസൻഡ് മുതലാണ് സ്റ്റാർട്ടെയ്യുന്നത് പിന്നെ ഓരോ ഓരോ പെറ്റ്സിൻ്റെയും ഏജ് പിന്നെ എല്ലാം നോക്കിയിട്ടൊക്കെയാണ് നമ്മള് ചെയ്യുക മ്മ് നമ്മള് വെയ്റ്റ് ആ ഓക്കെ ശരി ശരി